എൻ്റെ പേര് മരിയ എന്നാണ് ഞാൻ ഇപ്പോൾ സമീപിച്ചത് ഞാൻ ബുക്ക് ചെയ്ത ഗ്യാസ് സിലിണ്ടർ റദ്ദാക്കുന്നതിനെപ്പറ്റി പറയാനാണ് കാരണം ഞാൻ കൂടുതലായും ഭക്ഷണം കഴിക്കുന്നത് പുറത്തുനിന്നാണ് ആയതിനാൽ എനിക്കിപ്പോൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇത് റദ്ദാക്കുന്നതിക്കുന്നതിനെ പറ്റിയുള്ള എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുക ഇത് റദ്ദാക്കുന്നതിനായി എൻ്റെ എൻ്റെ ബുക്കിംഗ് റഫറൻസ് നമ്പർ ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം എട്ട് രണ്ട് മൂന്ന് നാല് ബാക്കി ആവശ്യത്തിനായുള്ള രേഖകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും പറയുക അതായത് എത്രയും പെട്ടെന്ന് റദ്ദാക്കുന്നതിനായുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്